സാങ്കേതിക വിദ്യയിലെ പുരോഗതി എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇപ്പം എന്റെ ജീവിതത്തിലുള്ള എല്ലാ ഇടപാടുകളും വളരെ എളുപ്പത്തിലായി മാറിയിരിക്കുന്നുണ്ട് കാ കാരണം എന്താന്നുവെച്ചാലിപ്പം ബാങ്കിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ നേരിട്ട് ബാങ്കില് പോകാതെ തന്നെ മൊബൈല് ഫോണിന്റെ സഹായത്തോടെ സ്മാര്ട്ട് ഫോണിന്റെ സഹായത്തോടെ എനിക്ക് ചെയ്യാന് സാധിക്കും വളരെ നിത്യജീവിതത്തില് വളരെയേറെ സ്വാധീനം ചിലത്തുന്നുണ്ട് ഇപ്പോഴത്തെ സാങ്കേതികവിദ്യ നിത്യജീവിതത്തില് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തില് വളരെയേറെ സ്വാധീനം ചിലത്തുന്നുണ്ട് അതായത് ഹോട്ടല് ബുക്ക് ചെയ്യാനും ഹോട്ടല് ബുക്ക് ചെയ്യാന് വേണ്ടി അവരെ വിളിക്കണ്ട ആവശ്യമില്ല എല്ലാം ഫോണില് തന്നെ അവിടെ പോയിട്ട് അന്വേഷിക്കണ്ട ആവശ്യമില്ല ഇപ്പോൾ സിനിമാ ടിക്കെറ്റ് സിനിമാ കൗണ്ടറി പോയിട്ട് ക്യു നില്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെ പെയ്മെന്റ് നടത്തെണ്ടതെങ്കിൽ ബാങ്ക് പോയിട്ടെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം തന്നെ നമ്മുടെ ഫോണിലൊരൊറ്റ വിരല് തുമ്പില് ഒരു അഞ്ച് സെക്കൻഡ് അഞ്ച് മിനിറ്റിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ കുറെ നമുക്ക് സമയം ലാഭാമുണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങള് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് പല തരത്തില് നമുക്ക് സാധനങ്ങള് വാങ്ങാനും കടയില് പോകേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരൊറ്റ വിരല്തുമ്പില് അതായത് നമ്മുടെ സ്മാര്ട്ട് ഫോണില് തന്നെ ഓരോഡര്ന്റെ ഇതില് നമുക്ക് അത് ചെയ്യാന് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതല് നമ്മുടെ നിത്യ ജീവിതത്തില് എല്ലാ ദൈര്ഘ്യമേറിയ ജോലികളും എളുപ്പത്തില് ആക്കാന് സാങ്കേതിക വിദ്യയുടെ പുരോഗതികൊണ്ട് സഹായിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാം എല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതത്തില് എല്ലാം തന്നെ വളരെ ഏറെ വളരെയേറെ എളുപ്പത്തിലും വേഗത്തിലും കൃത്യതയോടെയും സാങ്കേതിക വിദ്യയുടെ സഹായത്തിലൂട നമുക്ക് ചെയ്യാന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ടാക്സി ബുക്ക് ചെയ്യാന് വേണ്ടിട്ട് ടാക്സി സ്റ്റാന്ഡില് പോകേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് ഒരു ഫോണിന്റെ സഹായത്തിലൂടെ ഫോണ് എന്നു പറയുന്ന ഈ ഒരു ഡിവൈസിന്റെ സഹായത്ത് സഹായത്തിലൂടെ ഫോണ് മാത്രമല്ല പല തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ഉപകരണങ്ങളുണ്ട് ലാപ്ടോപ് ഐ സി ടി പോലുള്ള പല തരത്തിലുള്ള സാധനങ്ങളുടെ സഹായത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തില് എല്ലാം എളുപ്പത്തിലും വേഗത്തിലും ആക്കാന് സാധിക്കുന്നതാണ്